ആ ഇത് അല്ലെ കൊച്ചുകുടിയിൽ ഏജൻസീസ് ഇത് അല്ലെ ആ ആ ഞാൻ ഒരുപാട് ഒരുപാട് കേട്ടിട്ടുണ്ട് നിങ്ങളുടെ ഏജൻസിയെക്കുറിച്ച് അപ്പം എനിക്ക് ഇപ്പോഴാണ് അതിൽ ആവശ്യം വന്നത് അതുകൊണ്ട് ഞാൻ ഇപ്പം വന്നത് ആ പിന്നെ എൻ്റെ പുതിയ വീട് വച്ചു അപ്പം അതിലേക്ക് ഉള്ള അപ്ലയൻസസ് എടുക്കാൻ ആണ് ഇപ്പോൾ ഞാൻ കുറച്ച് ഫർണിച്ചർ അതൊക്കെ ആ അപ്പം എങ്ങനെയാണ് ഇവിടത്തെ

ഓക്കെ ഓക്കെ ആ ഇപ്പം ഞാൻ എന്തൊക്കെയോ ഓഫർ ഒക്കെ ഉണ്ടെന്ന് കേട്ടു അത് കാരണം ആണ് ഞാൻ വന്നത് മെയിൻ ആയിട്ട് ആ അതെയല്ലേ ആ അപ്പം

എനിക്ക് കിട്ടി ആ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെ എല്ലാം ഞാൻ നോക്കുന്നുണ്ട്

ആ സ്മാർട്ട് ടി വി ഒക്കെ അല്ലെ ആ

എനിക്ക് ഒരു ഓ ആ ആൻഡ്രോയിഡ് ടി വി ആണ് ഒര് തെർട്ടി ടു ഇഞ്ചിൻ്റ ഒരു ആൻഡ്രോയിഡ് ടി വി ആണ് ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കണത് ആ പുതിയ ആ ആ അതെ ആ തെർട്ടി ടു ഇഞ്ചിൻ്റ ആണോ ആ അത് ഒന്ന് നോക്കാം ഇത് നോക്കാം എന്നാൽ ആ എങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ പ്രൈസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്

പത്തേ അഞ്ഞൂറ് അല്ലെ ആ പത്തേ അഞ്ഞൂറ് ഏതാണ് നമുക്ക് കുറച്ച് കൂടുതൽ കാലം ഉപയോഗിക്കാൻ പറ്റിയത് അങ്ങനത്തെ ടൈപ്പ് ഏതാണ് സോണി തന്നെ ആണല്ലെ ഓക്കെ ഓക്കെ ഓക്കെ അല്ല ഇത് നിങ്ങൾ ഫിറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ എങ്ങനെയാണ് ഇത് നിങ്ങൾ ചെയ്ത് തരുമോ അതോ പുറത്തുനിന്ന് ആൾ വരുമോ ഓക്കെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരും അല്ലെ ഹോം ഡെലിവറി ഉണ്ടോ ഓക്കെ ഓക്കെ ആ പിന്നെ മറ്റെ എ സി എ സി ഏതൊക്കെയാണ് ഉള്ളത് വേർപൂൾ ആണല്ലെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ അത് നമുക്ക് എന്നാൽ വേർപൂൾ നോക്കാം ഓക്കെ ആ അതെ കുറച്ച് അങ്ങനെ സെലക്ട് ചെയ്യാം പിന്നെ നമുക്ക് കുറച്ച് നമ്മൾ വാഷിംഗ് മെഷീൻ നമുക്ക് ഇപ്പോഴത്ത ന്യൂ മോഡല് അങ്ങനെ ഏതാണ് നോക്കാം ഏതൊക്കെ കമ്പനീസിൻ്റെയാണ് ഉള്ളത് ആ എൽ ജീയുടെ ഒക്കെ ഉണ്ട് അല്ലെ ആ ഒനിഡ ഓക്കെ ആ ഓക്കെ ഓക്കെ

ഓക്കെ ആ പിന്നെ ഞാൻ ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജും നോക്കുന്നുണ്ട് ആ ഓക്കെ ഓക്കെ ആ ആ പിന്നെ ഒര് ഫ്രിഡ്ജ് ഡബിൾ ഡോറും നോക്കാൻ വേർപൂൾ ആണല്ലെ ഓക്കെ

ആ വേർപൂൾ എടുക്കാം ഓക്കെ ഓക്കെ എന്നാൽ നമുക്ക് അതിൻ്റെ പേയ്മെൻ്റ് ഒക്കെ ഏത് നോക്കാം ഓക്കെ ആ ശരി ശരി എന്നാൽ